ആ പറയൂ ആരാണ് ആഹാ ഓക്കേ പറയൂ പറയൂ എന്താണാവശ്യം ആ ആണ് ഞങ്ങളന്നെയാണ് ഞങ്ങളന്നെയാണ് പറഞ്ഞോളൂ എങ്ങനെയാണ് പ്രീമിയം ആണോ അതോ മിഡ് മിഡ് വേരിയൻറ്റ് ആണോ പ്രീമിയം പറയുമ്പോൾ ഞങ്ങളിവിടെ കൊടുക്കുന്നത് നമ്മുടെ ബി എം ഡബ്ലിയുൻ്റെ ജി ത്രീ ടെൻ ഇല്ലേ നമ്മുടെ അഡ്വഞ്ച അഡ്വെഞ്ചർ മോഡല് അതുകൊടുക്കുന്നുണ്ട് പിന്നേ പോ നമ്മുടെ കൈയിലുള്ളതൊരു ബെനലി ഇരിക്കുന്നുണ്ട് ത്രീ ടെൻ ബെനലി ത്രീ ടെൻ ഇതൊക്കേ വരുമ്പോൾ പെർ ഡേ എയിറ്റ് ഫിഫ്റ്റി എങ്ങാണ്ട് വരും രണ്ടു വണ്ടികൾക്കും അല്ലെങ്കിൽ നമുക്കൊരു മിഡ് വേരിയൻറ്റ് ആ ഫോർട്ടി എയിറ്റ് അവേഴ്സ് ലൈക് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇപ്പം ഞങ്ങൾക്ക് ഒരു ഇവിടുന്ന് അതിനുള്ള പെട്രോൾ ഞങ്ങളങ്ങ് തരും എയിറ്റ് ഫിഫ്റ്റി ആണ് ഞങ്ങൾക്ക് ആ ഞങ്ങൾ ആ അതും കൂട്ടീട്ടാണ് ലൈക് ഞങ്ങളതിൽ കുറച്ചിട്ടാണ് ലൈക് നിങ്ങക്കറിയാലോ നമുക്ക് ഒരു പെട്രോളിന് എത്ര രൂപക്കാ ലിറ്ററിന് പെട്രോൾ കിട്ടുകാന്നറിയാല്ലോ ആൻഡ് ഈവൻ ഞങ്ങക്ക് ഇങ്ങനെ ഞങ്ങക്കൊരു കണ്ടിഷൻ വരുന്നതെന്നുവെച്ചു കഴിഞ്ഞാൽ ലൈക് ആസ് യൂഷ്വൽ കേടുപാടുകളൊന്നും സ്ക്രാചസ് ഒന്നും പാടില്ലാ പിന്നേ എബോവ് എബോവ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റഴ്സ് ആണെങ്കി പെർ കിലോമീറ്ററിന് ത്രീ റുപ്പീസ് വെച്ചിട്ടു ഞങ്ങൾ പിന്നേ ചാർജ് ചെയ്യും ആ എബോവ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അതിപ്പോ വൺ ഡേ ആണെങ്കിലും ടു ഡേ ആണെങ്കിലും ഇല്ലില്ലാ ആ അതന്നേ ഞാനവിടെ ലൈക് കണ്ടിഷൻ പറഞ്ഞതല്ലേ ഇൻകേസ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് പ്ലസ് വരുകയാണെങ്കി ഞങ്ങൾ ഒരു കിലോമീറ്ററിന് പെർ കിലോമീറ്റർ ത്രീ റുപ്പീസ് വെച്ചിട്ട് ഇപ്പോ ഞങ്ങള് എക്സ്ട്രാ ചാർജ് ചെയ്യും പിന്നേ നിങ്ങക്കെന്തേലും അസ്സിസ്റ്റൻസ് ലൈക് റോഡിലെന്തേലും കേടുപാടുകൾ വരുവാണെങ്കി ട്വന്റ്റി ഫോർ ഇൻടു സെവൻ ഞങ്ങക്ക് കോഡിനേറ്റ് ചെയ്യുന്ന ആളെ വിളിക്കാൻ ഞങ്ങടെ ടീംസ് ആൾ ഓവർ ദി ഫോർടീൻ സ്റ്റേറ്റ്സ് നമ്മടെ നമ്മടെ അസ്സിസ്റ്റൻസ് ഉണ്ട് സോ യു ഗയ്സ് ഹാവ് എനിതിങ് ആ എന്തായാലും കാണും ഷുവർ എന്തായാലും പിന്നേ നമ്മടെ കസ്റ്റമറിനെ നമ്മള് ട്രീറ്റ് ചെയ്യണല്ലോ സോ അതിലൊന്നും പേടിക്കണ്ട അപ്പോ നിങ്ങക്ക് പ്രീമിയം ആണോ നോക്കണേ മിഡ് വേരിയൻറ്റ് എന്താണ് എവിടേക്കാണ് നിങ്ങള് യാത്രയാണോ മൂന്നാറൊക്കേ പോകുമ്പോ ഞാൻ പറഞ്ഞു തരട്ടെ ഇവിടെന്ന് സിക്സ് ഹവേർസിൻ്റെ ട്രാവൽ ഉണ്ട് വൺ സൈഡ് സിക്സ് ടു സെവൻ അപ്പോ നിങ്ങളൊരു പ്രീമിയം നോക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങക്കൊരു ഹിമാലയനൊക്കേ നോക്കുന്നതാവില്ലേ സോ ടൂറിംഗ് അല്ലേ നിങ്ങ നോക്കുന്നത് ടൂറിംഗിന് ലൈക് ഞാനൊരു അഭിപ്രായം പറയുന്നോണ്ട് ഇഷ്യൂ എന്തേലും ഉണ്ടാവുവോ ഇല്ലല്ലോ സോ നിങ്ങക്കൊരു ടൂറിംഗ് ഇതായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കി നമുക്കൊരു ഹിമാലയനിലേക്ക് പോകാം ബികോസ് ലൈക് ഹിമാലയനാകുമ്പോ ടൂറിംഗിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കി പക്കയാണ് ഒരു ലോങ്ങ് ഡ്രൈവല്ലേ ഹിമാലയനിപ്പോ നിങ്ങടെ വീടെവിടെയാ ആ സൊ നമ്മടാൾക്കാര് തന്നെയാണ് അപ്പം നമുക്കെന്തേലും ചെയ്തുതരാം ഞങ്ങക്ക് പറയണത് സിക്സ് ഫിഫ്റ്റിയാണ് ഞങ്ങൾ റേറ്റ് പറയുന്നത് നമുക്ക് അതൊരു ഫൈവ് ഹൺഡ്രഡിലേക്ക് വരാം അതില് പിന്നേ ആ ഒരു വൺ ഡേ ഫൈവ് ഹൺഡ്രഡ് മതിയാവും വൺ ആൻഡ് എ ഹാഫ് ഡേ എടുത്തോളൂ അപ്പോ എനിവേ ഓക്കേ ബൈ അപ്പോ നിങ്ങള് വിളിച്ചോളൂ